ഞാന് ഇപ്പോൾ കൊ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അപ്പം ഹോളിവുഡിലെ എല്ലാം ഭയങ്കര മോഡേന് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കാണാറുള്ളത് ടോളിവുഡിലും അങ്ങനെ തന്നെയാണ് അപ്പം ഞാന് കണ്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പം ബ്രഹ്മാസ്ത്രത്തില് അവിടെ ഒരു ടീഷര്ട്ടും ഒരു കോട്ട് പോലത്തെ ഇതും ഇടുന്നുണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി ഒരു ടീഷര്ട്ട് ലൂസ് ടീഷര്ട്ട് അതിന്റെ മേലൊരു കോട്ട് പിന്നെ സാരികള് നമ്മള് ടോളിവുഡിലാണെങ്കിൽ നയന് താര ഒക്കെ ഉപയോഗിക്കുന്ന സാരികള് ചെറിയ മറ്റേ ചുരിദാറുകള് അതേപോലെ കീര്ത്തി സുരേഷ് ഉപയോഗിക്കുന്നത് അങ്ങനെ തമന്ന ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് കാണുമ്പം ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയൊന്ന് സൃഷ്ടിക്കാന് ഞാന് ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറില്ല ഞാന് ചിലപ്പം സൃഷ്ടിക്കാന് ഇതാക്കില്ലേ നമ്മള് പിന്നെ ഓര്ഡര് ചെയ്യുകയോ അല്ലെങ്കില് റെഡിമെയ്ഡ് എടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് പിന്നേ ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങള് ഇപ്പം ആലിയാ ഭട്ടിന്റെയും രണ്വീര് സിംഗിന്റെയും ഒരു ജുംക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാരിയും ബ്ലൗസും ഭയങ്കര ട്രെന്ഡിയാണ് ഒരു വീ നെക്ക് ആയിട്ട് ഞാനാ സാരി പ്ലയിന് സാരി ആണ് കളേര്ഡ് ആയിട്ടുള്ളത് അതില് ബ്ലൗസില് കുറച്ച് വേറെറ്റി ആക്കി അതേപോലെതന്നെ ആക്കാന് ശ്രമിച്ചു അതേപോലെ ആക്കിയിട്ടുണ്ട് അവരുടെ അവര് പിന്നെ പാര്ട്ടിവെയര് ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രെസ്സൊക്കെ കണ്ടിട്ട് അതേപോലെ അങ്ങനെയൊക്കെ ഇടാന് ശ്രമിക്കാറുണ്ട്